എൻ്റെ കൈയ്യിലുള്ള ശേഖരങ്ങളെന്ന് പറയുമ്പോൾ പടങ്ങൾ ബുക്കുകൾ പിന്നെ അതുപോലെ സ്പിരിച്യുൽ വസ്തുക്കൾ പാത്രങ്ങൾ തുണികൾ ഇതൊക്കെ കളക്ഷനായിട്ട് ഞാൻ കരുതി മോൻ്റെ കയ്യിലുണ്ട് പിന്നെ സ്പിരിച്യുൽ വസ്തുക്കളെന്ന് പറയുമ്പോൾ കൊന്ത ചെറിയ ചെറിയ സ്റ്റാച്യുസ് ഇതൊക്കെ എനിക്ക് ഓരോരുത്തരും തന്നതും ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതെല്ലാം എൻ്റെ ഒരു ശേഖരമാണ് ഇതിൽ ഏറ്റവും എനിക്ക് സന്തോഷം നൽകുന്ന ഒരു സ്റ്റാച്യുവിൻ്റെ ഒരു സ്പിരിച്യുൽ ഫാദറ് എനിക്ക് തന്നെ ഒരു കൊന്തയാണ് എൻ്റെ കല്യാണത്തിന് എനിക്ക് തന്ന ഒരു കൊന്തയാണ് അത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഞാൻ അത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അത് ഫാദർ മരിച്ചു പോയി എങ്കിലും ആ ഫാദറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അതുപോലെ എൻ്റെ പിന്നെ വസ്ത്ര ശേഖരണത്തിൽ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിലും ഞാൻ അത് കളയാതെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അത് എനിക്ക് വളരെ വിലപ്പെട്ടതായിട്ട് തോന്നി എനിക്ക് എന്നെ കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളവരൊക്കെ എനിക്ക് തന്ന ഗിഫ്റ്റുകളായത് കൊണ്ടാണ് ഞാൻ ആ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിലും അലമാരയിൽ ഞാൻ അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അതുപോലെ പാത്രങ്ങളുടെ കളക്ഷനും എനിക്ക് നല്ലപോലെ ഉണ്ടായ എത്ര ആയാലും എടുത്ത് വീട്ടിൽ നിന്നും ഉപയോഗമില്ലാത്ത എടുത്ത് കളയാൻ പറഞ്ഞാലും ഞാൻ കളയത്തില്ല അതിനൊക്കെ ഓരോ മെമ്മറീസ് ഉണ്ടെന്നും പറഞ്ഞു ഞാൻ അതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ഗിഫ്റ്റ് കിട്ടിയ പ്രത്യേകിച്ചു എല്ലാം വീടിൻ്റെ മേളിലെടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പ്രത്യേകിച്ചു അതൊന്നും എടുത്ത് കളയാനായിട്ട് എനിക്കൊട്ടും താല്പര്യമോ ഇല്ല അതുപോലെ കുഞ്ഞ് നാളിലെ എൻ്റെ മകൻ്റെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റുകളും അവന് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഫോട്ടോസും എല്ലാം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് മകന് ഇപ്പോൾ മുപ്പത്തി എട്ട് വയസ്സായി എങ്കിലും ഞാൻ അതൊന്നും എടുത്ത് കളയാതെ ഇപ്പോഴും അതെല്ലാം ശേഖരിച്ചു വച്ചിട്ടുണ്ട് അവൻ നേഴ്സറി പോയപ്പോൾ അവന് ഡിക്റ്റേഷൻ ഇട്ടപ്പോൾ സമ്മാനം കിട്ടിയ അതും വരെ ഞാൻ എടുത്തു സൂക്ഷിച്ചിട്ടുണ്ട് ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് അന്നത്തെ ഓർമ്മകൾ അവൻ കൊച്ചു കുഞ്ഞ് നേഴ്സറി പോയി അമ്മേ എനിക്ക് ഇന്ന് ഡിക്റ്റേഷന് മുഴുവൻ മാർക്കും കിട്ടി സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ട് തന്നപ്പോഴുണ്ടായ ആ എക്സ്പ്രഷനും സന്തോഷവും ഒക്കെ ഞാൻ ഇപ്പോൾ അത് എടുത്ത് വല്ലപ്പോഴും എടുത്ത് നോക്കുമ്പോൾ അനുഭവിക്കാറുണ്ട് ഇതാണ് എൻ്റെ ശേഖരണത്തിലുള്ള ഓർമ്മയിലുള്ള ഓരോ നല്ല നല്ല ഓർമ്മകളെ എനിക്ക് നൽകുന്നത്